തീർച്ചയായും നമുക്ക് പിന്നെ നമ്മുടെ കോഴിക്കോടിൻ്റെ ന്യൂസുകളൊക്കെ നമുക്ക് ന്യൂസ് എയ്റ്റിയിൽക്കൂടി അറിയാം ജനയുഗയിലും മനോരമ വാർത്തയിലൊക്കെ അറിയാം അത് മലയാള മനോരമ നമ്മള് വീട്ടില് വരുത്തുന്ന മലയാള മനോരമയിലും കോഴിക്കോടിനെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ന്യൂസുകളൊക്കെ ഓൺലൈൻ ന്യൂസുകളുണ്ട് ഓപ്പൺ ന്യൂസുകളുണ്ട് കോഴിക്കോടിൻ്റെ ഓപ്പൺ ന്യൂസുകളുണ്ട് നമ്മൾക്ക് ഓൺലൈനിൽക്കൂടി ഓൺലൈൻ വെബ്സൈറ്റുകളിൽക്കൂടി നമ്മൾക്ക് അപ്പപ്പോൾ വാർത്തകള് നമ്മുടെ പ്രാദേശിക വാർത്തകള് നമ്മുടെ അടുത്ത് എത്താൻ സഹായിക്കേണ്ടത് ഈ മാധ്യമ ഈ ദൃശ്യ മാധ്യമങ്ങളാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓപ്പൺ ന്യൂസ് ഉള്ളതുകൊണ്ട് എവിടെ എന്ത് നടക്കുന്നു എങ്ങനെയെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഏക്സിഡന്റ് നടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ മരിക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിലോ എന്ത് ഉണ്ടായിക്കോട്ടെ നമുക്ക് വേഗം വേഗം നമ്മളിലെത്താൻ എനിക്ക് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത് ഓപ്പൺ ന്യൂസുകളാണ് ഓൺലൈൻ ന്യൂസുകളാണ് പിന്നെ ന്യൂസ് എയ്റ്റീൻ കേരളത്തിൽക്കൂടി നമുക്ക് വരാൻ പറ്റുന്ന നമ്മളെക്കുറിച്ച് നമ്മളെ ന്യൂസുകളൊക്കെ വരുന്നുണ്ട് ജനയുഗയില് വരുന്നുണ്ട് മലയാള മനോരമ വാർത്തയിൽ വരുന്നുണ്ട് മനോരമ വാർത്തകളില് വരുന്നുണ്ട് എല്ലാത്തിലും നമുക്ക് പിന്നെ പ്രാദേശിക വാർത്തകള് നമുക്ക് നമ്മുടെ ശ്രോതസ്സുകളാണ് നമ്മളിലേക്ക് എത്തിക്കാൻ പെട്ടെന്ന് പറ്റുന്നുണ്ട് അവർക്ക്